ആ വക്ക് കളിക്കുകയെന്നു പറയും വക്ക് കളിക്കുന്നതാണ് ഗ്രാമങ്ങളിൽ കളിക്കുന്നത് പിന്നെ ഗോലി കളിക്കുക പിന്നെ കള്ളനും പോലീസും കളിക്കുക അതൊക്കെ വക്ക് കളിക്കുന്നത് വെച്ചാൽ നമ്മൾ നാലഞ്ചു കോളായിട്ട് വരച്ചിട്ടതിലേക്ക് ഒരു ടൈലിൻ്റെ കഷ്ണമിട്ടിട്ട് നമ്മളിങ്ങനെ ചാടിച്ചാടി കളിക്കുന്ന കളിയാണ്

വക്ക് കളിക്കുകയെന്നു പറയുന്ന അത് ഓരോ സ്റ്റേജിലും ഓരോന്ന് നിന്ന് ഒന്നു കളിക്കുക അതു കഴിഞ്ഞിട്ട് രണ്ടു കളിക്കുക മൂന്നു കളിക്കുക പിന്നെ മൂല കളിക്കുക ആ അതു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മൂല രണ്ടു മൂല ഒന്ന് പിന്നതു പോലെ തന്നെ കയ്യ് കണ്ണ് കാല് പിന്നെ കാലിൻ്റെ വിരലിൻ്റെ വിടവിൽ ടൈൽ വെച്ചിട്ട് കളിക്കുക പിന്നെ കണ്ണ് പൊത്തി കളത്തിൽ വരയിൽ ചവിട്ടാതെ വെക്കാതെ വക്ക് കളിയിൽ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നത് പിന്നെ ഗോലി കളി കഴിഞ്ഞിങ്ങനെയെന്നു വെച്ചാൽ നേരെ ഓപ്പോസിറ്റിരിക്കുന്നയാളുടെ കൂടെ രണ്ടു കുഴി പോലെ മാന്തിയിട്ട് നമ്മൾ ഒരു സ്ഥലത്തിരുന്നിട്ട് ഉന്നം വെച്ചിട്ട് കോളത്തിലേക്ക് വീഴ്ത്താനായിട്ട് നോക്കുക അങ്ങനെയാണത് കളിക്കണത് അതുപോലെ തന്നെ പിന്നെ ഈർക്കിളി വെച്ചിട്ട് നമ്മളൊരു കളി കളിക്കും അതായത് ഈർക്കിളി കഷ്ണങ്ങളൊന്നിച്ചിട്ടിട്ട് ഓരോ ഈർക്കിളീമെ ടച്ചു ചെയ്യാതെ ടച്ചു ചെയ്യാതതെടുത്തു മാറ്റി വെക്കണം അങ്ങനെ കളിക്കും ഇതൊക്കെയാണ് ഞങ്ങളിവിടെ കളിക്കാറുള്ളത് പിന്നെ ഒരു കല്ലു കളിക്കും കല്ലുകളിയെന്നു പറയുമ്പത്തേക്ക് നമ്മൾ ഒന്നു കളിക്കുക രണ്ട് കളിക്കുക മൂന്നു കളിക്കുക അതു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തിട്ട് കയ്യുടെ പുറത്തിട്ട് കളിക്കുക പിന്നെ നെഞ്ചത്തടി വെട്ടുക അങ്ങനെയൊക്കെ അല്ലാതെ നൂറ് കളിക്കും അൻപതു കളിക്കും നാൽപ്പത് കളിക്കും ഇരുപത് ഓരോ ആൾക്കാരുടെ എണ്ണം വെച്ച് പത്തെണ്ണം പത്തെണ്ണം വീതം വെച്ചിട്ട് കളിക്കും ഇതൊക്കെയാണ് കളിയ്ക്കണെ പിന്നെ പാ പിന്നെ കളിയ്ക്കണതെന്നു വെച്ചാൽ വെട്ട് അതായത് വക്ക് കളിക്കുന്നതു പോലെ തന്നെ ചതുരങ്ങളിങ്ങനെ ഇത് സെൻ്ററിലൊന്നിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചാടിച്ചാടി കളിക്കുന്നതാണ് വട്ട് കളിക്കുകയെന്നു പറയുന്നത് വെട്ട് പിന്നെ ഒരു കളിയാണ് നമ്മുടെ മറ്റെ ഈ കോൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉന്നം വെച്ചിട്ട് കളിക്കുക അത് പിന്നെ പന്തേറ് ഒരാളുടെ മേത്തേക്കിങ്ങനെ പന്ത് എറിഞ്ഞിട്ടോടുക അവർ ക്യാച്ചെട് പിന്നെ ഐസോ വാട്ടർ ഇത് നമ്മളോടിച്ച് പിടിക്കുന്നൊരാൾ ഓ ഇങ്ങനെ നമ്മളെല്ലാവരും പിടിച്ചിട്ടൈസാക്കി നിർത്തും ഒരു വാട്ടറായിട്ടുള്ളയാൾ വന്നിട്ട് ഐസിനെയൊക്കുരുക്കും അങ്ങനെയൊക്കെ അതാണൈസോ വാട്ടർ പറയണത് എന്നിട്ട് ലാസ്റ്റൈസോ വാട്ടറെന്നു പറഞ്ഞു നമ്മൾ എല്ലാവരും വന്നിട്ടിയാളുടെ തലക്ക് കുത്തും ലാസ്റ്റ് വരുന്ന ആളായിരിക്കും അതിനകത്തു ക്യാച്ചാകുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ കളിക്കുന്ന കളികൾ